മിസ്റ്റർ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മിസ്റ്റർ ചാവറി അച്ഛൻ സിസ്റ്റർ മദർ തെരേസ സിസ്റ്റർ അൽഫോൺസാമ്മ എപ്രാസ്യാമ്മ അങ്ങനെ ഒരുപാട് വിശുദ്ധരെകുറിച്ച് നമ്മള് വിശുദ്ധരെകുറിച്ച് കേട്ടിട്ടുണ്ട് പിന്നെ അത്കൂടാതെ ആത്മീയ ഗുരുക്കളായിട്ട് പറയുവാണെങ്കിൽ ബോബിജോസ്കട്ടിയാട് അച്ഛനെ ഡൊമിനിക് വളംനാൽ അച്ഛൻ മാത്യു വയലാമണ്ണിൽ അച്ഛൻ ഡാനിയൽ പോണത്തിങ്കൽ അച്ഛൻ അങ്ങനെ ഒരുപാട് വൈദികര് സിസ്റ്റർ റോസ്മേരി അങ്ങനെ ഒരുപാട് സിസ്റ്റർമാരെ കുറിച്ചും ഒക്കെ കേൾക്കുന്നുണ്ട് പേര് ഇപ്പം സ്പെഷ്യലൈസ് ചെയ്ത് പറയാൻ പറ്റുന്നില്ല എങ്കിലും അവരെല്ലാവരും പിന്നെ ഞങ്ങളുടെ അതാത് ഇടവകളിൽ വരുന്ന വൈദികര് സന്യസ്തര് അവരും ഒക്കെ ഞങ്ങൾക്ക് നല്ല കാര്യങ്ങള് പറഞ്ഞ് തരുന്നുണ്ട് കൂടുതലും ഞങ്ങള് മീഡിയാ വഴി സോഷ്യൽ മീഡിയ വഴിയാണ് ഇവരെ കുറിച്ച് കേൾക്കുന്നതിന് ഇടയായത് അവരുടെ ടോക്സും അവരുടെ ആത്മീയ നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഒരുപാട് സഹായം നൽകുന്നുണ്ട് അവരുടെ നല്ല നല്ല ദൈവ വചനത്തെ കുറിച്ചുള്ള ക്ലാസ്സ്കള് പിന്നെ ഓരോ സാഹചര്യങ്ങള് പ്രതികൂലങ്ങളും തടസ്സങ്ങളും മറ്റും വരുമ്പോൾ എങ്ങനെ നമ്മള് ദൈവത്തില് ആശ്രയിച്ച്കൊണ്ട് പ്രാർത്ഥനാ ജീവിതം നയിച്ചുകൊണ്ട് അതിനെ നേരിടണമെന്നും ഈ ലോകത്തിൽൻ്റെ നന്മ തിന്മകള് വഴിതിരിച്ച് വിവേചിച്ചറിഞ്ഞ് എങ്ങനെ ഒര് യഥാർത്ഥ ക്രിസ്ത്യാനി ജീവിക്കണം എന്നൊക്കെ ഉള്ള ബോധവും ബോധ്യവും ഞങ്ങളുടെ പൂർവ്വികരിലൂടെ ഞങ്ങൾക്ക് കൈമാറ്റം ചെയ്ത ചെയ്യപ്പെട്ട് കിട്ടിയിട്ടുണ്ട് എങ്കിലും നിലവിലത്തെ സാഹചര്യത്തില് ഞങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ ഞങ്ങൾ വളരെയധികം കഷ്ട്ടപെടുന്നുണ്ട് ഞങ്ങളുടെ പുതിയ തലമുറയ്ക്ക് വിശ്വാസം നഷ്ട്ടപെട്ട് പോകുന്നോ എന്നൊരു സംശയം ഞങ്ങൾക്കുണ്ട് എങ്കിലും ഇതുപോലെയുള്ള ആത്മീയ ഗുരുക്കള് മാതൃകാപുരുഷന്മാരായിട്ട് സമൂഹമാധ്യമങ്ങള് വഴിയും മീഡിയാ വഴിയും പത്രങ്ങളിലൂടെയും പുസ്തകങ്ങളിലൂടെയും ഒക്കെ നല്ല നല്ല കാര്യങ്ങള് ഞങ്ങൾക്കും ഞങ്ങളുടെ അനന്തരതലമുറയ്ക്കുമായിട്ട് പങ്ക്വെയ്ക്കുന്നത്കൊണ്ട് ഞങ്ങൾക്കത് വായിക്കുന്നതിനും വളരെ ആത്മീയമായ് വളരുന്നതിനും വളരെയധികം സഹായിക്കുന്നുണ്ട് അവർ തരുന്ന നിർദ്ദേശംഅനുസ്സരിച്ച് നമ്മൾ ബൈ ദൈവ വചനം വിശുദ്ധ ബൈബിൾ കൂട്തൽ വായിക്കുന്നതിനും പഠിക്കുന്നതിനും സമയം ചെലവഴിക്കുന്നതിനും അതിൽ ആശ്രയിച്ച്കൊണ്ട് ദൈവ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് ബലം പ്രാപിക്കുന്നതിനും ഞങ്ങളുടെ മക്കളയും തലമുറയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ അവരുടെ നിർദ്ദേശങ്ങൾ ഞങ്ങൾ സഹായകം ആവുന്നുണ്ട് കൂടുതല് എനിക്ക് ബോബി ജോസ് കട്ടികാടച്ഛൻ്റെ ആത്മീയ നിർദ്ദേശങ്ങള് ഒരുപാട് മനസ്സിനെ സ്വാന്തനിപ്പിക്കുന്ന രീതിയിലെനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അച്ഛൻ്റെ ആ എല്ലാവരോടുമുള്ള കൺസേൺ ഈശോമിശിഹായുടെ തന്നെ ഈശോമിശിഹായെ പോലെ ഉപാധികളോ നിർദ്ദേശങ്ങളോ നിയന്ത്രങ്ങളോ നിന്നങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മളുടെ മനസ്സിനെ ആശ്വസിപ്പിക്കത്തക്ക രീതിയിലുള്ള ശ്രീ ബോബി ബഹുമാനപ്പെട്ട റിവറൻഡ് ബോബിജോസ്കട്ടിയാടച്ഛൻ്റെ ആത്മീയ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനും ആത്മാവിനൊക്കൊരുപാട് വിടുതൽ ലഭിക്കുന്നുണ്ട് അതനുസരിച്ച് ലളിതജീവിതം നയിക്കുന്ന അനേകം ആത്മീയ ഗുരുക്കളുടെ കൂടെവെച്ച് സോഷ്യൽ മീഡിയ വഴി നമ്മൾക്ക് അറിയുന്നതിന് സാധിച്ചു അവരുടെയൊക്കെ ആ ഒരു പ്രഭാഷണങ്ങൾലൂടെ പ്രബോധനങ്ങൾലൂടെ അനേകം പേര് മാനസ്സാന്തരത്തിലേക്ക് വരുന്നതിനും അത്വഴി ലോകത്ത് ഒരുപാട് നന്മ പ്രവർത്തികൾ നടക്കുന്നതിനും കാരണമാകുന്നുണ്ട് മാത്രമല്ല ഇന്നത്തെ ഈ തിന്മയുടെ ലോകത്ത് ഇതുപോലെയുള്ള ആത്മീയ ഗുരുക്കന്മാരുടെ ഒരുപാട് പ്രാർത്ഥനകള് അനേകം പേർക്ക് മനസ്സാന്തരത്തിന് കാരണമാവുന്നുണ്ട് തിന്മയിൽനിന്ന് വിടുതൽ നൽകാൻ ഇടയാകുന്നുണ്ട് ഇത് ലോകത്തെ വിശുദ്ധീകരിക്കുന്നുണ്ട് കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുന്നുണ്ട് വ്യക്തികളെ വിശുദ്ധീകരിക്കുന്നുണ്ട് അതൊക്കെ സോഷ്യൽ മീഡിയ വഴിയാണ് അറിയാൻ കഴിയുന്നെ അപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് അത് നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിച്ചാല് അത് നമുക്ക് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും വളർച്ചയ്ക്കും നൽക ഉതുകുന്ന ഒരു മീഡിയം തന്നെയാണ് സോഷ്യൽ മീഡിയ എല്ലാവരും അങ്ങനാണ് മൊബൈൽ ഉപയോഗിക്കുന്ന അങ്ങനെയാണ് ഇങ്ങനാണ് എന്നൊക്കെ പറയുന്നെങ്കിലും നല്ല നമ്മൾ എങ്ങനാണോ അതിനെ ഉപയോ കാണുന്നത് കാരണം മൊബൈല് കൊണ്ടുള്ള ഉപയോഗം എങ്ങനാണോ നമ്മുടെ ജീവിതത്തിന് നമ്മൾ ഉപകാരമാക്കിതീർക്കുന്ന് അതനുസരിച്ച് നമുക്ക് അതിൽനിന്ന് വളർച്ചയുണ്ടാവും നമ്മുടെ ബൗദ്ധികമായ നേട്ടത്തിനും ഉപകരിക്കും ആത്മീയവളർച്ചയ്ക്കും ഉപകരിക്കും അങ്ങനെ സോഷ്യൽ മീഡിയ വഴിയാണ് ആത്മീയഗുരുക്കന്മാരെ കുറിച്ച് കൂടുതലറിയാൻ കഴിഞ്ഞത് അപ്പം അവര് തരുന്ന നിർദ്ദേശങ്ങളും പ്രാർത്ഥനകളും നമ്മുടെ പൂർവ്വികരിലൂടെ നമുക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട വിശ്വാസത്തിൽ നമുക്ക് സ്ഥിരമായി നിലനിൽക്കുന്നതിനും അതിൽ നിന്ന് മുന്നോട്ട് പോകുന്നതിനു ഒക്കെ ഈ ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തില് എങ്ങനെ നമ്മള് വചനത്തിലും ദൈവത്തിലും വിശ്വസിച്ചുകൊണ്ട് മുന്നേറണമെന്ന് ഈ ആത്മീയ ഗുരുക്കന്മാരിൽ നിന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അത് വളരെ പുതിയ തലമുറയ്ക്കും അതായത് ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞുങ്ങൾക്കും അവരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രപോധനങ്ങളും ഒക്കെ വളരെ നല്ല രീതിയിലവരെ വളരാനും നന്മയിലേക്ക് നയിക്കുന്നുണ്ട് ഇത്തന്നെ ആയാലും സോഷ്യൽ മീഡിയായിലൂടെയാണ് ഈ ആത്മീയ ഗുരുക്കന്മാരെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് ഇനിയും ഇനിയും ഒരുപാടവസരങ്ങൾ അതിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിത് ഞങ്ങളുടെ നന്മയ്ക്കായ് ഞങ്ങളുടെ മക്കളുടെയും അനന്തര തലമുറയുടേയും നന്മയ്ക്കായ് ഞങ്ങളുപയോഗിക്കുന്നു ഞങ്ങള് കുറച്ച് എല്ലാം ഫോള്ളോ ചെയ്യാൻ പറ്റില്ലെങ്കിലും വളരെ വളരെ അനുഗ്രഹം ഞങ്ങൾക്കതിലൂടെ ഉണ്ടാവുന്നുണ്ട്